നമ്മുടെ ഇന്നത്തെ ജീവിത ശൈലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിനോദപരമായിട്ട് നമ്മൾ എക്സ്ർസൈസ് അല്ലെന്നുണ്ടെങ്കിൽ വിനോദപരമായിട്ടുള്ള ഗെയിംസ് കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചു എന്ന് തന്നെ വേണം പറയാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം എല്ലാവരും ജോലി തിരക്കുണ്ട് ഫാസ്റ്റ് ഫുഡ് ഇതിൻ്റെ എല്ലാം പുറമേ നമ്മുടെ ആരോഗ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കാനായിട്ടുള്ള സമയം ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ആർക്കും ഇല്ലയെന്നു തന്നെ തോന്നുന്നു അതുകൊണ്ട് സമയം കിട്ടുന്ന സമയങ്ങളിൽ ജിമ്മോ സൈക്ളിങ്ങ് എക്സ്ർസൈസുകൾ കാരണം കോളസ്ട്രോൾ ഷുഗർ പ്രെഷർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇന്നത്തെ എല്ലാ ഒരുമാതിരിപ്പെട്ട യങ് ജെനറേഷൻ മുതൽ ചെറുപ്പക്കാരിൽ മുതൽ ഉണ്ടെന്നു തന്നെ പറയാം അതുകൊണ്ട് അത് പോലത്തെ അസുഖങ്ങൾ നമ്മൾ മുൻകൂട്ടി വരുമെന്ന് പ്രവ വിചാരിച്ചു കൊണ്ടു തന്നെ അത് വരാതിരിക്കാനുള്ള മുൻകരുതലായിട്ടു തന്നെ നമ്മളിതുപോലുള്ള എക്സ്ർസൈസുകൾ കാര്യങ്ങൾ അതിൽ നമുക്ക് താത്പര്യമുള്ള ഏതാ ഗെയിംസ് ഫുട് ബോൾ അല്ലെന്നുണ്ടെങ്കിൽ ഷട്ടിൽ കളിക്കുക അങ്ങനെയുള്ള നമുക്ക് ബോഡിക്ക് നല്ലൊരു ഊർജ്ജം അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ആത്മവിശ്വാസം വർധിപ്പിക്കുന്ന രീതിലുള്ള ഏകാഗ്രത പിന്നെ കിട്ടുന്ന രീതിലുള്ള എക്സ്ർസൈസുകൾ കാര്യങ്ങളിലേക്കെല്ലാം നമ്മൾ കൂടുതലായിട്ടും ചെയ്യാനും അതുവഴി നമുക്കതൊരു എന്താ പറയുന്നത് നമ്മുടെ ഒരു ആരോഗ്യം തിരിച്ചെടുക്കാനും നമുക്ക് സാധിക്കും